ഹലോ ഇത് താസ റസ്റ്റോറൻ്റല്ലേ ഞാനൊരു അരമണിക്കൂറിന് മുമ്പ് കുറച്ച് ഫുഡ് ഓഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറിയ ആ ഓഡറ് ചെറിയ മാറ്റം വരുത്തണമായിരുന്നു നേരത്തെ ഞാനൊരു പത്ത് പൊറോട്ടയും അഞ്ച് ചപ്പാത്തിയും ഒരു ഹാഫ് മന്തിയും കൂടെ ആയിരുന്നു ഓഡർ ചെയ്തത് ഹാഫ് മന്തിയുടെ കൂടെ ഒരു ബീഫ് കറി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ചില കാരണങ്ങളാൽ എനിക്ക് കുറച്ച് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഫുഡിൻ്റെ ഓഡറിൽ ഒര് പത്തു പൊറോട്ടായ്ക്ക് പകരം അഞ്ച് പൊറോട്ട മതി അതിൻ്റെ കൂടെ ബീഫ് കറിയുടെ കൂടെ ഒരു ചിക്കൻ കറിയും ആഡ്ഡ് ചെയ്തേക്കണം പിന്നീടൊരു ചിക്കൻ സൂപ്പ് വേണം അപ്പം ഞാൻ ലൊക്കേഷൻ എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് എത്ര രൂപയാണെന്ന് വച്ചു കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണോ അതോ ജി പേ ചെയ്താൽ മതിയോയെന്ന് പറയണേ ജി പേ ചെയ്താൽ മതിയെങ്കിൽ